ഒരുപാട് നക്ഷത്രങ്ങളുള്ള നമ്മുടെ ഗാലക്സിയിൽ നക്ഷത്രങ്ങളിൽ ഓരോന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇപ്പം എന്താ പറയുക വേട്ടക്കാരൻ അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട് എന്താ പറയുക നമ്മൾ ഓരോ നക്ഷത്രത്തിനും ഓരോ ഇതുണ്ട് എന്താ പറയുക ഓരോ കഥ പറയാനുണ്ടാവും അതുപോലെത്തന്നെ ആ നക്ഷത്രങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ നക്ഷത്രം നമ്മുടെ ഭൂമിയാണ് ഭൂമി ഭൂമിയിൽ നമ്മൾ കാണുന്ന ഓരോ ചെറിയ നക്ഷത്രങ്ങൾ പോലും ഓരോ ഉപഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഉപഗ്രഹങ്ങൾ അതുപോലെത്തന്നെ എന്താ പറയുക നക്ഷത്രങ്ങൾ രൂപം പെട്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് പഠിക്കാം ഓരോ ആ നക്ഷത്രത്തിന് ഷെയ്പ്പ് കൊണ്ടുതന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പത്ത് നൂറ് മില്യൻ വർഷങ്ങൾക്കു മുമ്പാണ് നക്ഷത്രങ്ങൾ എന്താ പറയുക കണ്ടിട്ടുണ്ടെന്ന് വേണം പറയാം അതുപോലെതന്നെ നക്ഷത്രങ്ങളെക്കുറിച്ച് കൂടി പഠിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായ ഓരോ എന്താ പറയുക ശാസ്ത്രീയമായിട്ടും നമുക്ക് ഓരോ എന്താ പറയുക ശാസ്ത്രീയമായിട്ടല്ല നമുക്ക് അന്തരീക്ഷത്തെപ്പറ്റി പഠിക്കാൻ ഒക്കെ കഴിയുന്നുണ്ട്